ഹലോ അപ്പം ഞാൻ വിളിച്ചതേ എനിക്കൊരു ഇവെൻറിനായിട്ട് ഓൺലൈനിൽ നിന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടില്ല അപ്പം ഞാൻ കുറച്ച് അതിൻ്റെ നിലവാരത്തെപ്പറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് കേട്ടോ വിളിക്കുന്നത് നിങ്ങൾ ആക്ച്വലി ഏത് മെറ്റീരിയൽ ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ പിന്നെ എംബ്രോയ്ഡറി വർക്ക്സും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് കൊടുക്കുവാണോ അതോ നിങ്ങൾ തന്നെ ചെയ്യുവാണോ ഓക്കെ പിന്നെ മെറ്റീരിയൽസ് എങ്ങനെയാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുവാണോ അതോ ഡയറക്റ്റ് നിങ്ങൾ തന്നെ പോയി എടുക്കുന്നതാണോ ഓ പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഒരുപാട് നമ്മൾ ഇപ്പം കോട്ടൺ മെറ്റീരിയൽ